ആ ഓ ബേക്കറിയാണോ

ബേക്കറിയിൽ

അത് ആ നമുക്ക് സ്വീറ്റ് പൊറോട്ട വേണമായിരുന്നല്ലോ അതിന് ആണോ ഒരു പത്തെണ്ണം വേണമായിരുന്നു വേറെ വേറെ ഏതെങ്കിലും ബൺ ഇത് അതിനൊക്കെ റേറ്റ് എത്രയാണ് ആ ആൾ

ആ നമുക്ക് സ്വീറ്റ് പൊറോട്ടയും ബണ്ണും വേണമായിരുന്നു ബണ്ണും പത്തെണ്ണം വേണം

ആണോ എന്താണ് ഉള്ളത് ആ എന്താണ് ആ ഏത്ത ഒരു അഞ്ഞ രണ്ട് കിലോ വെച്ചേരേ

ആ പൂത്ത

ആ മധുരം ഉള്ളതാണോ ആ മധുരം ഉള്ള സാധനങ്ങൾ ആണോ

ആ ആ എന്നാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്യണമായിരുന്നല്ലോ ഞാനങ്ങോട്ട് വരുവോ അതേയോ കൊടുത്ത് വിടുകയോ വല്ലതും ചെയ്യുമോ ആ അന്നേരം ഞാനങ്ങോട്ട് വരാം

ആ എല്ലാം പത്തെണ്ണം വെച്ചേരെ പാൻ കേക്കും പത്തെണ്ണം വെച്ചേക്ക്

ആ ആ

ആ ഞങ്ങൾ അങ്ങ് വന്നോളാം ഞങ്ങൾ അവിടെ അടുത്താണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങ് വന്നോളാം ഞങ്ങൾ ആദ്യം ഞങ്ങൾ പഴം വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏത്തപ്പഴം

ആ ഏത്തപ്പഴം വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

സ്വീറ്റ് പൊറോട്ട പിന്നെ പഴം

ആ ശരി ശരി ഓക്കെ